അഡൽ അമൃത് യോജന എന്ന് പറയുന്നത് നമ്മുടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അഡൽ ബിഹാരി വാജ്പേയുടെ പേരിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇത് ഇതിൽ അമൃത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തെന്നാണ് അഡൽ മിഷൻ ഫോർ റീജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഫുൾ ഫോം വരുന്നത് അതിൽ ഇത് ശരിക്കും പറയുന്ന നമ്മുടെ അപ്പോൾ പിന്നോക്ക പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ ലഭ്യത ഉറപ്പു വരുത്താം കുടി വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പു വരുത്തുന്നാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം പിന്നെ അത് പോലെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഉപയോഗം വെറുതെ കിടക്കുന്ന തരിശ് ഭൂമികളെടുത്തിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അതിൻ്റെ മനോഹാരിതയും പച്ചപ്പൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ ആ സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുക അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ പാർക്കുകൾ നിർമ്മിക്കുക ഇതൊക്കെ ഇതിൻ്റെ ഉദ്ദേശം തന്നെയാണ് ഇതിൻ്റെ നല്ലൊരു ഇതാണ് പിന്നെ വേറേ പദ്ധതിയെ കുറിച്ച് എനിക്ക് അറിയാവുന്നതെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷൂറൻസ് പരിരക്ഷയുടെ ഒരു പദ്ധതിയുണ്ട് അതായത് പി എം ജെ വൈ എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന പദ്ധതി അത് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് സമൂഹത്തിലെ ദരിദ്രർക്കും പിന്നെ അതേപോലെ തന്നെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർക്കും ഒരു ആരോഗ്യ സംരക്ഷണ ഉറപ്പു വരുത്തുക അപ്പോൾ അതിൽ എന്താണ് പറയുക ഇ കാർഡെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് നമ്മൾ ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നു അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റലിൽ കിടക്കണ്ടതൊക്കെ വരുകയാണെങ്കിൽ കാഷ്ലെസ് ആയിട്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾക്ക് ഇതിന്ന് ലഭിക്കും അപ്പോൾ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ പരിരക്ഷ ഉറപ്പു വരുത്താം അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് എനിക്കറിയാം പിന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രദേശത്തുള്ളവർക്ക് അതിൻ്റെ ഉപയോഗം കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അത് എന്താണ് പറയുക നിസാരം പ്രീമിയമെ വരുന്നുള്ളു ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷൂറൻസ് കവറേജ് ഉണ്ടെന്നാണ് ഞാൻ മനസിലാക്കിയേക്കുന്നത് അപ്പ നമുക്ക് അത് അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ഹോസ്പിറ്റലിൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ എല്ലാ ഹോസ്പിറ്റലുകളിലും കിട്ടണം എന്നില്ല ലിസ്റ്റ് ചെയ്യപ്പെട്ട ചില ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഈ കാർഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇതിൻ്റെ പരിരക്ഷ കിട്ടുന്നത് അപ്പ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഉപഭോതാക്കൾക്ക് കാഷ്ലെസ്സായിട്ടുള്ള പ്രയോജനം കാഷ്ലെസ്സായിട്ടുള്ള ഇത് എമൗണ്ട് ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട് ഇതാണ് എനിക്കറിയാവുന്ന ഒരു പ്രധാനമറ്റന്ത്രിയുടെ ഒരു പദ്ധതി